ഇപ്പോ നമ്മുടെ ബസ് എന്നാൽ ഇപ്പം നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടി തന്നെ ബസ് പോകുന്നുണ്ട് അപ്പം നമ്മളിപ്പം തൊട്ടടുത്ത് ഒരു അഞ്ചു കിലോമീറ്റർ പോകണമെങ്കിൽ പോലും നമ്മൾ ബസ്സിലാണ് പോകുക ബസ്സിൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് ആൾക്കാർ ഉണ്ടാകും ചിലപ്പം നല്ല തിരക്കുണ്ടാകും നല്ല തിരക്കുള്ള സമയങ്ങളിൽ നമ്മൾ ഫ്രണ്ടിലെ മറ്റേ ഡ്രൈവർ ഇരിക്കുന്ന അവിടെയുള്ളൊരു പെട്ടി സീറ്റുണ്ട് അവിടെയാണ് കുഞ്ഞു മക്കൾ തൊട്ട് അപ്പം കുഞ്ഞുമക്കൾ എന്നില്ല എല്ലാവരും അവിടെ തന്നെ കുറേ പേരൊക്കെ അവിടെ തന്നെ ഇരിക്കാറുണ്ട് പിന്നെ സ്ഥലങ്ങൾ ഇല്ലാ സമയങ്ങളിൾ പിന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ വിൻഡോ സീറ്റിൽ ഇരിക്കുന്നതിന് ഒരു പ്രത്യേക വൈബ് ആണ് വിൻഡോ സീറ്റെന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് വിൻഡോ സീറ്റിൽ ഇതാകുന്നത് അപ്പം നമ്മളിപ്പോൾ ഇടക്ക് കാട്ടിക്കുളം അങ്ങനെ ടൗണിൽ ഒക്കെ ചെല്ലുമ്പം എന്താ പറയുക നമ്മുടെ ഡീസൽ ഒക്കെ ഫുള്ള് ആക്കാറുണ്ട് അപ്പോൾ ഡീസലിലാണ് അത് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞമ്ല് ബസ്സിലെ യാത്ര സുഖകരമാണ് ഇപ്പം നമ്മളൊരു അഞ്ച് കിലോമീറ്റർ അല്ല അഞ്ച് അതിലും കൂടുതൽ ഒരുപാട് ദൂരങ്ങൾ നമ്മൾ ബസ്സിൽ സഞ്ചരിക്കുമ്പം ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഒക്കെ നിർത്തി തരാറുണ്ട് അതാണ് പിന്നെ നമ്മൾ ഇപ്പം ടൂറിസ്റ്റ് ബസ്സിൽ പൊയ്ക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക കെ എസ് ആർ ടി സിയിൽ ഒക്കെ നല്ല വൈബ് ആണ് അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ ലോക്കൽ പാസഞ്ചർ ബസ്സിനെ ഒക്കെ കുറിച്ച്